ഹലോ ആ നമ നമസ്ക്കാരമുണ്ട് ആ മേഡം ഞാൻ പത്താം ക്ലാസ്സിൽ ഏ എ ഡിവിഷനിൽ പഠിക്കുന്ന പ്രഭാകരൻ്റെ അമ്മയാണ് ആ ഒരു നാല് ദിവസത്തേക്ക് വേണ്ടി ലീവ് വേണമായിരുന്നു ആ ആ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാശി വരെ പോണമായിരുന്നു ആ ഒരു ഒരു തീത്ഥാടനം ആണ് ആയിരുന്നു ആ അവൻ്റെ അമ്മൂമ്മ മരിച്ചു പോയായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മൂമ്മേടെ അവസാനത്തെ ആഗ്രഹവായിരുന്നു

ആ അതെ അതെ ആ അതെ അതെ ആ ആ നമ്മൾ ഒന്നും പറഞ്ഞാലും ഒന്നും കേൾക്കത്തൊന്നും ഇല്ല ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കത്തു കയറാൻ വരും ഈ സമയം സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഫോണും പിടിച്ചോണ്ടിരിപ്പാണ് അതല്ലെങ്കിൽ ടി വീം വെച്ചോണ്ടിരിക്കും എന്നായൊക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല്യാത്തവൻ

ആ അതൊന്ന് കൊടുക്കണം അവൻ്റെ പുറ്റി കയറ്റി അതെ എന്നാ ചെയ്യാനാ എൻ്റെ മേഡം അവൻ്റെ പുറ്റി കയറ്റി കൊടുത്താൽ അവൻ എൻ്റെ പുറ്റിക്കിട്ട് തരാൻ വരും ആ അതെ ആ തലതെറിച്ചവനെ വേണം ഇനി മതി ഇവൻ ഇവൻ ഒറ്റൊരുത്തനായിരിക്കും എൻ്റെ കൊച്ചിനെ ഇതുപോലെ വഴി തെറ്റിക്കുന്നവൻ ആ അവനെ അങ്ങ് ഡിസ്മിസ് അങ്ങ് ചെയ്തേക്ക് എൻ്റെ കൊച്ചങ്ങ് രക്ഷപ്പെടട്ടെ എൻ്റെ മേഡം അതെ അതെ എന്നാ ചെയ്യാനാണ് കാലത്തിൻ്റെ കലികാലം ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും അതെ അതെ

ആ അതെ ആ അതെ അതെ ആ ആ ആ നാളെ കഴിഞ്ഞത്തേക്ക് ഞങ്ങൾ പോകുന്നത് ആ ഹ

ആ ശരി ശരി എന്നാൽ ആ നന്ദി